കോഴികളെ ബാധിക്കുന്ന ചില സാധാരണ രോഗങ്ങളെന്നു പറയുന്നത് നമ്മുടെ നാട്ടിൽ കാണുന്ന പക്ഷിപ്പനിയാണ് ആ പക്ഷിപ്പനി വരാതിരിക്കാനായിട്ട് മുൻകരുതൽ എടുക്കാൻ വേണ്ടി മൃഗാശുപത്രികളിലൊക്കെ പോയി നമ്മൾ പ്രതിരോധ മരുന്നുകളൊക്കെ വാങ്ങി കൊടുക്കാറുണ്ട് പിന്നെ കോഴികൾക്ക് വൃത്തിയായിട്ടും ശുദ്ധിയായിട്ടും ഒക്കെ ആഹാര സാധനങ്ങൾ ആഹാരങ്ങൾ കൊടുക്കുമ്പോൾ വളരെ വൃത്തിയായിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട് പഴയ ആഹാരങ്ങൾ കൊടുക്കാതിരിക്കാനും കൊടുക്കുന്ന പാത്രത്തിൽ തന്നെ വീണ്ടും വീണ്ടും കൊടുക്കാതിരിക്കാനുമൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് ശ്രദ്ധിച്ചു അങ്ങനെ പരിപാലിക്കുകയാണ് ചെയ്യുന്നത് കോഴിയെ കോഴിമുട്ടയാണെങ്കിലും യഥാസമയം എടുക്കുകയും അത് വൃത്തിയായിത്തന്നെ സൂക്ഷിച്ച് പലരുടെ കൈയിലെത്തുന്ന സാധനമായതുകൊണ്ട് നമ്മളത് വളരെ കേയർ ആയിട്ടുതന്നെ ചെയ്യുന്നു കോഴിയുടെ വിസർജ്യ വസ്തുക്കൾ ചെടികൾക്കായിട്ടും മറ്റും ഉപയോഗിക്കുന്നു പച്ചക്കറി ഇടാനായിട്ടും പച്ചക്കറികൾക്ക് വളമായിട്ടുമൊക്കെ ഉപയോഗിക്കുന്നുണ്ട്